ഹലോ അതേ ആണല്ലേ ആ ഏതൊക്കെ ആയിരുന്നു എന്നാണ് വേണ്ടത് എന്തോ എന്തോ ആ ഉണ്ടോ ഉണ്ട് ഞാനിപ്പോൾ അവിടെയുണ്ട് ആ ആ എന്തൊക്കെയാണ് പിന്നെ എങ്കിലെ അതിനെ മെമ്പർഷിപ്പ് വേണേൽ മെമ്പർഷിപ്പെട്ക്കണം ആ ആ ആ ആ മു നമുക്ക് ആദ്യമേ ഇവിടെ മെമ്പർഷിപ്പെടുക്കുന്നതിന് ഇവിടെ നമ്മളിപ്പം ഇരുന്നൂറ് രൂപയാണ് ആ ആ ഇര്ന്നൂറ് രൂപ അടച്ച് മെമ്പർഷിപ്പെടുത്താൽ എടുത്താൽ നമുക്ക് തുടർച്ചയായിട്ട് കുറെ നാളത്തേക്ക് ഇനിയെടുക്കാം പിന്നെ എന്തെലുമുണ്ടെങ്കിലത് പുതുക്കിയാൽ മതി ഇടയ്ക്ക് വന്നൊന്ന് പുതുക്കിയാൽ മതി ഏതൊക്കെ പുസ്തകമായിരുന്നു ആൻ്റിക്ക് വേണ്ടത് ആ ആ ആ ആ സ്റ്റോക്കിൽ സ്റ്റോക്കിലുണ്ട് ഉണ്ട് ആ ഉണ്ടൊണ്ടൊണ്ടൊണ്ട് ആ ഉണ്ടൊണ്ട് ആൻറ്റീ ഒന്ന് ഇവിടെ വരെ വരാവോ എങ്ങനെയാണ് വരാവോ ഒന്ന് ആ ആ ആ ആ ആ ആ ഏതിൻ്റെ നമ്മൾ രണ്ടാഴ്ച്ച കഴിയുമ്പം നമുക്കത് വായിച്ചിട്ട് തിരിച്ച് കൊണ്ടത്തരണം പിന്നെ നമ്മൾ ആ അല്ലായെങ്കിൽ പിന്നെ നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് തുച്ഛമായ ഫൈനേ ഉള്ളു പത്ത് രൂപ ഇരുപത് രൂപയൊക്കെയേ ഫൈനൊള്ളു പക്ഷേ എന്നാലും നമ്മൾ കണ്ടിന്യൂസ്സ് നമ്മുടെ കൈ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ മെമ്പർഷിപ്പ് നിങ്ങളുടെ കട്ടായിപ്പോവും അതുകൊണ്ട് പുസ്തകം നമ്മൾ വായിച്ചിട്ട് ഈ സമയത്തിനുള്ളിൽ തിരികെ കൊണ്ട് തരണം ആ ആ ആ ആ മെമ്പർഷിപ്പെടുക്കുന്നേൽ ഇരുന്നൂറ് രൂപ വേണം എന്തോ വേറെ ഫീസും കാര്യങ്ങളൊന്നും നമുക്കില്ല ആ ശരി ആ ഫൈനൊണ്ട് ഫൈനൊണ്ട് എന്ന് മാത്രമേ ഉള്ളു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്കത് പുസ്തകം പിന്നെ എപ്പം വേണേലും വന്നെടുക്കാം ഞാനെല്ലാ സ ഫുൾ ടൈമിവടെയുണ്ട് രാവിലെ രാവിലെ ഒൻപത് മണി തൊട്ട് വൈകുന്നേരം നാല് മണി വരെ ഉണ്ട് ഞാനിവിടെ ആൻ്റി ഇടയ്ക്കിപ്പം നാല് മണിയാവുമ്പോൾ വരുവല്ലോ നാല് മണിക്കുള്ളിൽ വരികേലെ നാല് മണിവരെ ഇരിക്കത്തൊള്ളു ആ ആ നാല് മണിവരെ ഉള്ളൂ അപ്പം ആൻ്റി അന്നേരത്തേക്കിന് വന്നാൽ മതി അപ്പം ആ ഞാൻ തരാം ആ ഇങ്ക്ളീഷ് പുസ്തകമൊക്കെയുണ്ട് ആ ഹാ ഉണ്ടൊണ്ടൊണ്ട് അത് എങ്ങനെയാന്ന് വെച്ചാൽ ആൻ്റി വന്നേ ഇപ്പം മെമ്പർഷിപ്പെടുക്കാൻ വരുന്ന കൂട്ടത്തിൽ ആൻ്റി ഒന്ന് നോക്കിയാൽ മതി എന്നാക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ വന്ന് സെലക്റ്റ് ചെയ്താൽ മതി ആ ആ മോള് പഠിക്കുവാണോ എത്രയ്ക്ക് ആ മോൾക്കും ആൻ്റിക്കും ഒരു ഒരു വീട്ടിലെ അല്ലേ അപ്പം പിന്നൊരു മെമ്പർഷിപ്പിൻറെ ആവശ്യമേയുള്ളു രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമില്ല ആ ആ ഇല്ലില്ലില്ല ആ മോള് പഠിച്ചോണ്ടിരിക്കുന്നതല്ലേ

ഒരു സമയം എത്ര അത് എത്ര പുസ്തകം വേണേലും എടുക്കാം അത് കുഴപ്പമൊന്നുമില്ല അ ഇല്ലില്ലില്ല പക്ഷേ അതിതുപോലേ ഉള്ളു യൂ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് തീരെ ഇ സമയത്തിനുള്ളിൽ തിരികെ കൊണ്ട് തരണമെന്ന് മാത്രമേയുള്ളു ഏത് ബെസ്റ്റാറ് ചെമ്മീനു ആരാച്ചാരും ആ ആ ആ ഞാൻ ഞാൻ ഒന്ന് ഒന്ന് നോക്കിയെടുത്ത് വച്ചേക്കാം ഉണ്ടിവിടെ ഉണ്ടിവിടെ ഞാനൊന്ന് ഇവിടെന്ന് എടുത്ത് വെച്ചേക്കാം കേട്ടോ ആ ആ ആ ഒൻപത് മണിക്ക് ശേഷം വരണം ആ ആ ആ